ഹലോ ഫെവിൻ ഷോപ്പ് അല്ലേ ആ എനിക്കൊരു നല്ലൊരു മൊബൈൽ ഫോണ് വേണമായിരുന്നു റിയൽമിയുടെ

ബഡ്ജറ്റ് ഇപ്പോൾ നല്ല സ്റ്റോറേജും കാര്യങ്ങളുമുള്ള ഫോണാണെങ്കിൽ എത്ര ബഡ്ജറ്റായിരിക്കും ഒരു

ആണോ ഓക്കെ ഓക്കെ എനിക്ക് ആ എനിക്ക് നല്ലൊരു ഫോണ് വേണം ഇപ്പം ആ മീഡിയം എൻ്റെ കയ്യിലിപ്പം ഇരിക്കുന്നത് അമ്പത്താറ് ജീ ബി ആ ഒരു ഇതിൻ്റെ അപ്പോൾ അത് കുറച്ച് ഒരു രണ്ട് മൂന്ന് വർഷം ഇതങ്ങനെ ഹേങ്ങായി സംഭവം ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ യൂസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലായി ഇരിപ്പുണ്ട് ഡിസ്പ്ലേയൊക്കെ അപ്പം അതു കാരണം എനിക്ക് ഒരു നല്ലൊരു ഫോണ് ഒരുപാടു വർഷം കൊറച്ചുകൂടി യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ഒരു ഫോണ് വേണം അതാണ് ഞാൻ നോക്കുന്നത്

ഓക്കെ

ആ ആ അപ്പം

ആ ആ ഓക്കെ ആണോ ഓക്കെ ഓക്കെ ആ ആ

അതെയോ തേർട്ടി എയ്റ്റോക്കയോ തേർട്ടി എയ്റ്റ് വരുമല്ലേ ഇപ്പം നമുക്കൊരു

നമുക്ക് ആ ആ പ്രൊവൈഡ് ചെയ്യുന്നത് ഓക്കെ ആ ആ ആ ആ ഓക്കെ നമുക്ക് ഇപ്പം ഇ എം ഐ ആയിട്ട് അടക്കാൻ പറ്റുമോ അങ്ങനത്തെ ഇത് ഇതുണ്ടോ അപ്പോൾ അതെങ്ങനെയാണ് മന്ത്ലി എത്ര രൂപയാണ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ മന്ത്ലിയല്ല ഞാൻ ഉദ്ദേശിച്ചത് മന്ത്ലി പിന്നെ ഇയറിനുള്ളിൽ അടച്ചു തീർക്കണം അങ്ങനെയുള്ള അങ്ങനെയാണോ അത് ആണോ ആ ആ ഓഹ് അങ്ങനെ രണ്ടായിരത്തി എണ്ണൂറ് അല്ലേ മാസം ഓക്കെ ഓക്കെ ആ അപ്പം ഫൊട്ടോയൊക്കെ എടുക്കാൻ നല്ല നല്ല ക്യാമറ തന്നെ ഹലോ

ആണോ ഓക്കെ ഓക്കെ

ആ ഓക്കെ ഇപ്പോൾ ആ ഓക്കെ ഇ എം ഐയൊക്കെ ഉണ്ടല്ലോ അപ്പം നമുക്ക് ഓക്കെയാണ് നല്ല ഫോണ് തന്നെയാണെങ്കിൽ നമുക്ക് അത് വാങ്ങിക്കാം അപ്പം ഞാൻ ഓക്കെ ആ ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു